കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കീടങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ എൻ്റെ വിളകളെ ബാധിക്കുന്നതന്നു പറഞ്ഞുകഴിഞ്ഞാല് കാലാവസ്ഥാപരമായിട്ടു നമ്മള് പല കീടങ്ങളും നമുക്കു ഞാന് ഒരു കുറച്ചു പച്ചക്കറി ഈ അങ്ങനെ ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാന് കുറച്ച് ഗാർഡനിങ് പച്ചക്കറി കൃഷി ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ വിളകളെ നന്നായിട്ട് ചില പയര് പയറു വർഗ്ഗങ്ങള് ഇപ്പോള് പയര് നമുക്കു പാവയ്ക്ക ഒക്കെ ഇടുവാന്ന അത്രയും വരുന്നില്ല പയറാകുമ്പോ ള്നമുക്ക് ഇതിനകത്തു കീടങ്ങള് വരുന്നുണ്ട് ചാഴി അങ്ങനെയുള്ള കാര്യങ്ങള് വരുന്നുണ്ട് കാലാവസ്ഥാവ്യതിയാനങ്ങള് ശരിക്കും നമുക്കു നമ്മുടെ പച്ചക്കറിയെ നമ്മുടെ വിളകളെയൊക്കെ ബാധിക്കുന്നുണ്ട് അതിനു നമ്മൾ ചെയ്യുന്നതെന്നു പറഞ്ഞുകഴിഞ്ഞാല് ഒന്നുകിൽ അതിനുള്ള മരുന്നടിക്കുക ഇപ്പോള് നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ളത് അപ്പോള് അത്രയേ ഒക്കത്തുള്ളൂ നമുക്ക് അല്ലെങ്കിൽ നമ്മള് ഒരു ഞാൻ ചെയ്യുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നീറ് നീറെന്നു പറയുന്ന ഒരു ഉറുമ്പ് പോലുള്ള ആ നീറിനെ ഞങ്ങള് അതിനകത്ത് ഈ പയറേലൊക്കെ കയറ്റി വിടും അപ്പോ അത് ഈ ചാഴിയൊക്കെ കയറാതെ അത് അതിനെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോള് അങ്ങനെ പിന്നെ ചാരം ചാരം വീട്ടില് ഉപയോഗിക്കുന്ന ചാരം അതിൻ്റെ മണ്ടയ്ക്കൂടെ ഇടുക പിന്നെ പുകയിലക്കഷായം ഇങ്ങനെ നമുക്കു രാസവളമല്ലാത്ത രീതിയില് നമുക്ക് അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ വിളകളെ നന്നായിട്ട് ബാധിക്കും മഴ പെയ്യേണ്ട സമയത്ത് വെയില് വെയില് പെയ്യേണ്ട സമയത്ത് മഴ ഇങ്ങനൊക്കെ പ്രതികൂലമായിട്ട് നമുക്ക് എല്ലാ രീതിയിലും നമുക്കു വിളകളെ ബാധിക്കുന്നുണ്ട് കീടങ്ങള് കീടങ്ങളെന്നു പറയുമ്പോള് ഈ കീടം മാത്രമല്ല നമ്മളൊരു ചെറിയ കീടത്തെ മാത്രമല്ല അത് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങളുടെ ഈ ഭാഗത്തെന്നു പറയുമ്പോള് ഒരു മലയോര പ്രദേശമാണ് ആ ഭാഗത്തു പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് നമ്മള് കീടങ്ങളെ മാത്രം പറഞ്ഞിട്ടു കാര്യമില്ല പന്നി പന്നി എന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമ്മള് കൃഷി ചെയ്യുന്ന സാധനങ്ങള് നമുക്കൊന്നും കിട്ടാറില്ല നമ്മള് വേലിയൊക്കെ ചെയ്തു നമ്മള് നന്നായിട്ടു ചിലപ്പോള് നമ്മള് സ്വന്തമായിട്ടായിരിക്കും നമ്മള് കിളച്ചുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആരെയങ്കിലുംഒന്നോ രണ്ട് ദിവസത്തേക്കു നമ്മള് പണിക്കാരെ നിർത്തും പക്ഷെ അതൊന്നും നമുക്കു കിട്ടാൻ പോകുന്നില്ല നമ്മളാ പിറ്റേ ദിവസം നോക്കുമ്പോള് പന്നി വന്ന് എല്ലാം നശിപ്പിച്ച് ആയി അതൊരു കീടമാണ് ഞാനാ പന്നിയെ ഒരു കീടമായിട്ടാണു കാണുന്നത് കാലാവസ്ഥാവ്യതിയാനത്തിൻ്റെ മാത്രമല്ല അതുമായിട്ട് യാതൊരു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടു വരുന്നുണ്ട് അതിലും ഇതായിട്ടു പോകുന്നതു കർഷകരെ കൂടുതലും പ്രയാസപ്പെടുത്തുന്നത് ഇതുപോലുള്ള വലിയ വലിയ കീടങ്ങളാണ് പന്നിയെയുംകൊണ്ടു നമ്മുടെ ഈ ഭാഗത്തെന്നു പറയുമ്പോള് നമുക്കിപ്പോള് കൃഷി ചെയ്യുന്നത് ഒരു കുറവാണ് കാര്യം ഇതുകൊണ്ടാണ് ഈ പന്നി ഇങ്ങനെ വന്നു ശല്യപ്പെടുത്തുന്നതുകൊണ്ട് പക്ഷേ പന്നിയെ വെടിവയ്ക്കാമെന്നു പറയുന്നതല്ലാതെ പക്ഷേ അതൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇപ്പോള് ഒരു കര്ഷകൻ്റെ കയ്യിലെന്തോവാ അതിൻ്റെ കയ്യില് തോക്കിരിക്കുകയാണോ ഇല്ലല്ലോ അപ്പോള് അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തുനോക്കുമ്പോള് നമ്മള് കീടങ്ങള് പല രീതിയിലുണ്ട് ചെറിയ കീടം മുതല് വലിയ കീടം വരെ നമുക്കു പ്രതികൂലമായിട്ടു നമ്മുടെ കൃഷിയെ നമ്മളെ എല്ലാ രീതിയിലും കാലാവസ്ഥ വ്യതിയാനങ്ങള് ബാധിക്കുന്നുണ്ടെന്നുള്ളതു സംശയമന്യേ പറയാവുന്ന ഒരു കാര്യമാണ് അതു സംശയം കൂടാതെ ഞാൻ പറയുന്നു